ആ ഞാന് കോളേജ് കലോത്സവത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഒറ്റ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഞാന് കുച്ചിപ്പുടിക്കാണ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് കുഴപ്പം ഉണ്ടായി ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കാലം എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ എനിക്ക് സെക്കൻഡ് പ്രൈസ് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അത്ര നന്നായിട്ട് എനിക്ക് പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടിണ്ടായിരുന്നില്ല രണ്ടു ദിവസം എനിക്ക് വയ്യ വയ്യാതായിരുന്നു ഞാൻ ഹോസ്പിറ്റലായിരുന്നു പിന്നെ എങ്ങനെയോ എനിക്ക് കളിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കുച്ചിപ്പുടിയാണ് ഞാന് കളിച്ചത് അപ്പോൾ എനിക്ക് ഇനിയൊരു അവസരം കിട്ടാണ് വെച്ചാൽ എനിക്ക് ഇനിയൊരു സ്റ്റേജ് കിട്ടാന്ന് വെച്ചാൽ എനിക്ക് കളിക്കണമെന്ന് നല്ല രീതിയില് കളിക്കണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പോൾ നിർത്തോന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മളത് എന്താ പറയുക നന്നായിട്ട് ഡെഡിക്കേഷനായിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു സംതൃപ്തി ഉണ്ടാകും അല്ലെങ്കിൽ നമ്മൾ അത് കളിക്കുന്ന സമയത്ത് നമ്മൾ ആത്മാർത്ഥമായി നമ്മൾ എല്ലാ എഫ്ഫർട്ടിട്ടും കളിക്കണ സമയത്ത് നമുക്കത് കമ്പ്ലീറ്റ് നന്നായി വരാൻ ആഗ്രഹുണ്ടാകും അപ്പോൾ എനിക്കത് ഒരു കളിച്ച രീതിയിൽ എനിക്ക് അത്ര ഒരു തോന്നിയിട്ടുണ്ടാ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു അപ്പത് എപ്പഴെങ്കിലും ഒരു സ്റ്റേജ് കിട്ടാന്ന് വെച്ചാൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ എനിക്ക് ആഗ്രഹം ഉണ്ട്